ഹലോ ആ പറ ചേട്ടാ ഫാക്ട് കംപോസ് ഒക്കെ ഏക്കറിന് പിന്നെ ഫാക്ട് കംപോസും അങ്ങനെ കേട്ടിട്ട് തിരിയുന്നില്ലല്ലോ ഏക്കറിന് രണ്ടൊന്നും വേണ്ട ഏക്കറിന് ഒരു ചാക്ക് മതി ഒരു ചാക്ക് മതി അ ഏക്കറിന് ഒരു ചാക്കുമതി സൂര്യ ആദ്യം ഒരു വരും ഫാക്ട് ഫാക്ട് കംപോസും യൂറിയായും കൂടി ഫാക്ട് കംപോസും യൂറിയായും കൂട്ടി അങ്ങോട്ട് കൂട്ടി ആക്കി ഇട്ടേച്ചാൽമതി പൊട്ടാസിയം ഇപ്പോൾ കൊടുക്കേണ്ട വേണ്ട വേണ്ട പൊട്ടാസിയം ഇപ്പം കൊടുക്കേണ്ട പൊട്ടാസിയം പൊട്ടാസിയം രണ്ടാമത് ചേർക്കുന്നത് നല്ലതാ രണ്ടാമതായിട്ട് ചേർക്കാം മൈക്രോ പുല്ലൊക്കെ രണ്ടാമത്തെ വളത്തിൻ്റെ കൂട്ടത്തിൽ ആദ്യത്തെ വളത്തിൻ്റെ കൂട്ടത്തിലും രണ്ടാമത്തെ വളത്തിൻ്റെ കൂട്ടത്തിലും ഇടുന്നവരുണ്ട് കരണം അത് ചെനപ്പിനും ഒക്കെയാ കാടു കയറി ചെനപ്പിന് വരാൻ ഒക്കെയാ അത് ഓരോരുത്തരുടെ സൗകര്യം പോലെയങ്ങ് ഇടുക അല്ലാതെ ഇടുന്നവരുമുണ്ട് ഇടാത്തവരുമുണ്ട് ആ ആ ഉണ്ട് അതിന് അതിന് വലിയ വിലയാ ആ വരും വരും അവിടെന്ന് വരുമ്പോഴത്തേനും നമുക്ക് കാണിക്കാം ഓരോരുത്തർക്കും രണ്ടുമൂന്ന് സൈസുണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആദ്യത്തെ